മേ ഐ കമിൻ മാം ഉം പനി ആണ് രണ്ട് മൂന്ന് ദിവസം ആയി പനി ആയിട്ട് മാറുന്നില്ല

പനി ആണ് മൂന്നാല് ദിവസമായി ഡോക്ടർ നല്ല തൊണ്ടവേദന ഹോസ്പ്പിറ്റലിൽ ഒരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മാറുന്നില്ല പക്ഷെ ആ മെഡിസിൻ കഴിച്ചിന് പാരസിറ്റാമോൾ തന്നെ ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ബോഡി പെയിനൊന്നും വിട്ടു മാറുന്നില്ല ആ അവ ഉം ഉം വേറെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ വേറെ എന്തെങ്കിലും കഴപ്പം ഉണ്ടാകുമോ നമുക്ക് ബോഡി പെയിൻ നല്ലവണ്ണം ഉണ്ട് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് അപ്പം അത് ഈ പനിയുടെ തന്നെ ആയിരിക്കില്ലെ ഇതൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് തൊണ്ടയിൽക്കൂടി ഭയങ്കര ചൂട് വരുന്നുണ്ട് അപ്പം പനിയുടെ ആണോ അതോ ടെംപറേച്ചർ കൂടുതലായത് കൊണ്ട് ആണോ ഇപ്പം എങ്ങനെയാണ് ഇപ്പം വീട്ടിൽ നമ്മൾ ആവി ഒക്കെ പിടിച്ച് നോക്കി കുറയുന്നില്ല അപ്പോൾ ടെസ്റ്റ് ചെയ്താൽമതിയോ അതോ ഇപ്പം ചെക്ക് ചെയ്യണോ

ഞാൻ ഒരു മൂന്ന് മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടിണ്ടായിരുന്നു ബ്ലഡ് അപ്പം എച്ച് ബി ഭയങ്കര കുറവാണ് ഇനി അതിൻ്റെ ഏത് ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൈയ്യിലുണ്ട് ആ ഈ ഇവിടെത്തന്നെ നമുക്ക് ഉം ആവി പിടിക്കാനുള്ള ആ അത് വേണം ശ്വാസം മുട്ടൽ കുറച്ച് ഉണ്ട് ഇവിടെനിന്ന് ഈ അതിന് ഇനി എന്തെങ്കിലും പ്രൊസീജിയറുണ്ടോ അതെ ഉം ഇത് ഇപ്പം എൻ്റെ മോൻ മോനും ഇതേ ഫീവർ തന്നെയാണ് അപ്പം ഞാൻ കഴിക്കുന്ന മരുന്ന് അവന് കൊടുക്കാൻ പറ്റുമോ ഇല്ല വന്നിട്ടില്ല ചെറിയ കുട്ടിയാണ് ആ അതെയതെ പനിയുണ്ട് ആ ഓക്കെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട്